ഹലോ ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഓൺലൈനായിട്ടൊരു സമ്മാനം വാങ്ങി പക്ഷേ അത് ഇതുവരെയായിട്ടും ഡിസ്പാച്ച് ചെയ്തിട്ടില്ല അപ്പം അതിന് ഞാൻ ഷിപ്മെൻറ് അന്വേഷിച്ചു അതിൽ അന്വേഷിച്ചപ്പം എന്ന് എത്തും എന്നുള്ളത് ഡേറ്റ് നോക്കിയായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര വൈകി വരുന്നത് അതായത് ഡേറ്റ് കഴിഞ്ഞിട്ടും പിന്നെ ട്രാക്ക് ഓർഡറ് ചെയ്തപ്പോൾ എന്തുകൊണ്ടത് വൈകുന്നു എന്നുള്ളത് നോക്കി അപ്പം കുറേ രണ്ടുദിവസം ഡിലേ ആവും എന്ന് പറഞ്ഞ് എന്തോ പാക്കിങ്ങിൻ്റെ ഒരു ആവശ്യം കൊണ്ടിട്ടാണ് ഡിലേ ആകുന്നത് എന്നുള്ളതിൻ്റെ മെസ്സേജ് കണ്ടു പിന്നെ ഞാൻ ആ ഒരു നമ്പറിലേക്ക് കോൾ സെൻററിലേക്ക് വിളിച്ചു ഷിപ്മെൻറിൻ്റെ കോൾ സെൻ്റിലേക്ക് വിളിക്കാൻ നോക്കി പക്ഷെ ട്രൈ ചെയ്തു കിട്ടിയില്ല ആ ഓപ്ഷനുകളൊക്കെ നോക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പരമാവധി കോൾ സെൻ്റർൽ വിളിക്കാനാണ് നോക്കുകയുള്ളൂ കോൾ സെൻ്ററിൽ ട്രൈ ചെയ്യാനായിട്ടാണ് നോക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റാവുന്നതിനുള്ള കാരണം എന്താ എന്നുള്ളതിനെ അറിയുന്നത് മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ കോൾ സെൻ്ററിൽ നമ്മൾ ഓർഡറ് ചെയ്ത കോൾ സെൻററിൽ വിളിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് പിന്നെ ട്രാക്ക് ഓർഡറ് നോക്കും എന്തുകൊണ്ടാണ് ഡിലേ ആവുന്നതിനുള്ള ട്രാക്ക് ഓർഡറും കറക്റ്റായിട്ട് നോക്കും